ഹലോ ഇത് ഓഷ്യൻ റെസ്റ്റോറൻ്റല്ലേ ഞങ്ങടെ സ്ക്കൂളിലൊരു ആനുവൽ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നെ അപ്പോൾ ഒരു നാന്നൂറ് പേർക്കുള്ള ഓർഡർ വേണായിരുന്നു ബിരിയാണീൻ്റെ ഓർഡറാണ് നാന്നൂറ് പേർക്കാണ് വേണ്ടത് ടീച്ചേഴ്സും കുട്ടികളൊക്കെ അടങ്ങുന്ന നാന്നൂറ് പേർക്ക് വേണം ഇത് മസാലയും ഗ്രേവിയും കുറച്ച് കൂടുതല് വേണം അതുപോലത്തന്നെ ബിരിയാണീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി അവയിലബിൾ അല്ലേ ചിക്കൻ ബിരിയാണി നാന്നൂറെണ്ണമാണ് വേണ്ടത് മസാലയും ഗ്രേവിയൊക്കെ കുറച്ച് കൂടുതല് വേണം അപ്പം ഈ വരുന്ന വെള്ളിയാഴ്ച്ചത്തേക്കാണ് വേണ്ടത് അപ്പം വെള്ളിയാഴ്ച്ച മതി ഞാനൊന്നൂടെ വിളിക്കാം ഓർഡറെവിടേക്കാ എത്തിക്കേണ്ടതെന്ന് ഞാൻ പറയാം അപ്പോൾ വെള്ളിയാഴ്ചത്തേയ്ക്കൊന്ന് സെറ്റാക്കണേ